ഹലോ കസ്റ്റമർ കെയർ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിലേക്ക് നെറ്റ് കണക്ഷനൊന്നും കിട്ടുന്നില്ലാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ കോള് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം തീരെ കിട്ടുന്നില്ല നെറ്റ് ഒന്നും കിട്ടുന്നില്ല അതൊന്ന് റെഡിയാക്കണം കേട്ടോ എത്രയും പെട്ടെന്ന് പിന്നെ ഫോൺ വിളിക്കാൻ പറ്റുന്നുണ്ട് ആ ആ കുഴപ്പമില്ല എങ്കിലും ഫോൺ കണക്റ്റാവുന്നില്ല ഇടയ്ക്ക് ചില ടൈമില് ചില സമയത്ത് നെറ്റ് കിട്ടുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എത്രയും പെട്ടന്നൊന്ന് റെഡിയാക്കി തരണേ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കോൾ വിളിക്കാനും എല്ലാ വീഡിയോ കോൾ വിളിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ നെറ്റിൻ്റെ എത്രയും സ്പീഡായിട്ട് തന്നെ ചെയ്യാൻ നോക്കണേ ആ കോള് കോള് കിട്ടുന്നുണ്ട് നെറ്റ് നെറ്റിൻ്റെ പ്രശ്നമാണ് പരമാവധി ചില ടൈമുകളില് കോള് കിട്ടുന്നില്ല പിന്നെ വീഡിയോസ് വീഡിയോ ഒന്നും കാണാനോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പറ്റുന്നില്ല പിന്നെ വാട്സപ്പും ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത ഓക്കെ ഓക്കെ ശെരി എന്നാൽ ഓക്കെ